ഒരു നല്ല ഫോട്ടോ എടുക്കാൻ ഒരു നല്ല ഫോട്ടോഗ്രാഫർക്ക് മാത്രമല്ല ഒരു ഫോട്ടോഗ്രാഫി ഇഷ്ടപെടുന്ന ആൾക്കുവരെ സാധിക്കാവുന്നതാണ് ഒരു നല്ല ഫോട്ടോഗ്രാഫി എടുക്കാൻ അയാൾക്കൊരു നല്ല ക്യാമറയും അത്രയും ഹൈ ക്വാളിറ്റി ക്യാമറ വേണമെന്നില്ല ഒരു നല്ല ക്യാമറയും അതേപോലെ തന്നെ ഒരു നല്ല ഫോട്ടോഗ്രാഫി ആ ഒരു മോമന്റ്റ് കണ്ടാൽ അതിൽ നിന്നും എങ്ങനെയൊക്കെ നമുക്ക് ഏതൊക്കെ രീതിയിലെടുക്കാം എന്നുള്ളൊരു ചിന്താഗതി വരുന്ന ആളായിരിക്കണം പിന്നീട് ഒരു പൂ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ സൺറൈസ് കറക്റ്റ് ആ സൺ ആ രണ്ട് മലകൾ അല്ലെങ്കിൽ ഒരു കുറേ മലകൾ അതിനിടയിൽ ജസ്റ്റ് ഒന്ന് അന്ന് വരുമ്പോൾ തന്നെ ക്യാപ്ചർ ചെയ്യണം അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് വേറെയാണ് ഇപ്പോൾ ഒരു ക്യാമറയിലോ അല്ലെങ്കിൽ ഫോ ഫോണിലോ എടുക്കുന്ന രണ്ട് വ്യത്യസ്തതരമായ ഫോട്ടോസ് രണ്ടും രണ്ട് രീതിയിലാണ് രണ്ടാൾക്കാരെടുക്കുക ഇപ്പോൾ ഒരു ഒരാൾ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുന്നു ഒരാൾ ഫോണ് ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുന്നു രണ്ടു പേർക്കും ക്യാപ്ചർ ചെയ്യാവുന്ന സ്കിൽസ് ആ ഒരു ആ ഒരു നിമിഷം അല്ലെങ്കിൽ ആ ഫോട്ടോ എടുക്കാനുള്ള രീതി രണ്ടു പേർക്കും പലതരമായിരിക്കും അതുപോലെ തന്നെ രണ്ട് ഫോട്ടോകളും എടുക്കണമെങ്കിൽ നല്ല ക്യാമറ മാത്രമല്ല നല്ലൊരു നല്ലൊരു ക്യാമറയും അത്രയും എക്സ്പീരിയൻസ് വേണമെന്നല്ല പക്ഷെ നല്ലൊരു ഫോട്ടോ എടുക്കാൻ കഴിവുള്ള ആൾ ആയിരിക്കണം ഷട്ടർ സൗ ഷട്ടർ സ്പീഡ് അതേപോലെ തന്നെ ഐഎസ്ഒ അതേപോലെ തന്നെ വിവിധ തരമായ ഫിൽറ്ററുകൾ അതുപോലെ തന്നെ കോൺട്രാസ്റ് ബ്രൈറ്റ്നസ് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോണ്ട് എടുക്കുന്ന ഫോട്ടോസ് അത്രയും മനോഹരമായ രീതിയിൽ നമുക്ക് കിട്ടാവുന്നതാണ് ഒരു നല്ല ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന എന്നു പറയുന്നത് എൻ്റെ ഫോണിലാണ് എനിക്കൊരു നല്ല ക്യാമറ ഇല്ല പക്ഷെ എൻ്റെ ഫോണിൽ ഫോട്ടോ എടുക്കുമ്പോൾ കറക്റ്റ് പൊസിഷനിങ്ങും അതേപോലെ തന്നെ കറക്റ്റ് ബ്രൈറ്റ്നസ്സും ലൈറ്റും അതേപോലെ തന്നെ കറക്റ്റ് വേണ്ട ആ ഒരു കറക്റ്റ് മോമന്റ്റ് അത് കിട്ടുമ്പോൾ ഞാൻ നല്ല രീതിക്ക് ക്യാപ്ചർ ചെയ്യും